അതെ മൊബൈൽ ഷോപ്പ് പറഞ്ഞോ ഓക്കെ ആൾറെഡി ചെയ്തതാണോ അല്ല പുതി ചെയ്യേണ്ടതാണോ ഏത് ഫോൺ മോഡൽ ഏത് മേടിച്ചിട്ടെത്രയായി അത് നിങ്ങൾക്ക് വേണ്ടത് പോലെ ചെയ്യാം അത് സംഭവം എന്താണ് ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഏത് മോഡൽ ആണ് റീപ്ലേസ് ചെയ്യാണ്ട് അതിൻ്റെ കിട്ടേണ്ടത് കമ്പനി വന്നാൽ ഇപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി ഒക്കെ ഇടാറുണ്ട് നിങ്ങൾ ഫ ഒറിജിനൽ ആണെങ്കിൽ ഒറിജിനൽ നമുക്കിടാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ തന്നെ നോക്കാം ഒറിജിനൽ ആണെങ്കിൽ വൺ ഇയർ വാറൻറി ഒക്കെയുണ്ട് ഒരു ഏകദേശം ഫോർ തൗസൻഡോളം വരുന്നുണ്ട് ഒറിജിനൽ ആയത് റിയൽമി അല്ലേ ഓക്കെ ഇപ്പോൾ എന്തായാലും വൺ ഇയർ ആയിട്ടില്ലല്ലോ പർച്ചേസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഫോണിൻ്റെ റേറ്റ് നമുക്ക് മൊത്തമായി കുറയ്ക്കാം ടു തൗസൻഡ് ഉള്ളത് ആ അതിനൊക്കെ അത്രയേ ആറ് മാസമേ ഉണ്ടാവൂ അത് മൊ നമുക്കൊരു ത്രീ സെവനും ത്രീ ഹൺഡ്രഡ് ഫൈവ് ഫൈവ് ഹൺഡ്രഡും ആക്കിത്തരാം ഓക്കെ നിങ്ങൾ ഷോപ്പിലോട്ട് വന്ന് വാങ്ങിക്കോ